കൃഷിയെക്കുറിച്ച് പുതിയ തലമുറയോട് പറയാനുള്ള നിർദ്ദേശംന്ന് വെച്ചാൽ ഒന്ന് പുതിയ തലമുറയിലുള്ള ആൾക്കാർ കൃഷീനെ പറ്റീട്ട് ഒന്നും ശ്രദ്ധിക്കുന്നില്ല കൃഷി ചെയ്യുക കൃഷി ചെയ്യാനൊന്ന് ശ്രമിക്കുവോ ഒന്നും ചെയ്യുന്നില്ല അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ഇപ്പോൾ ഈ കാലത്ത് നമ്മൾ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികളും പഴങ്ങളും നമ്മളന്നെ കൃഷീയ്യണം നമുക്ക് പറ്റുന്ന നമ്മൾ കൃഷി ചെയ്യുക ഈ കടകളിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറിയായാലും പഴങ്ങളായാലും എല്ലാം വിഷാംശമുള്ളതാണ് അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കുമ്പോൾ അത് ആരോഗ്യ പ്രശ്നമെല്ലാം കൂടുതലുണ്ടാവും അതുകൊണ്ട് നമ്മൾ നമുക്ക് പറ്റുന്നത് നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മളന്നെ ഉണ്ടാക്കുക അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഒരു ആരോഗ്യമുണ്ടാവും അല്ലാണ്ട് എല്ലാം കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് കേട് വരും പിന്നെ ഇപ്പോൾ പുതിയ തലമുറാന്ന് പറഞ്ഞാൽ കൃഷീനെപ്പറ്റീട്ട് ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്തെങ്കിലും ചെറിയ ചെറിയ നമുക്ക് പറ്റുന്നത് മാത്രം കൂടുതലൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് പറ്റുന്നത് ചെയ്യാനാന്ന് പുതിയ തലമുറയോട് പറയാനുള്ള ഒരു കാര്യം